ആ ഓക്കേ സർ മനസ്സിലായി അതെ ഞാൻ ട്രാവൽ ഏജന്റാണ് സർ ഓക്കേ വയനാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും സർ

ഓക്കെ ചെമ്പ്ര പീക്ക് നമുക്കിപ്പോൾ ഓപ്പൺ ആണ് സർ കുറച്ചുദിവസമായിട്ട് ക്ലോസിലാരുന്നു മഴയെത്തുടർന്ന് അങ്ങോട്ട് കയറിപ്പോകാൻ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ക്ലോസിലാരുന്നു ഇപ്പോൾ വീണ്ടും ഓപ്പണായിട്ടുണ്ട് സർ നമുക്കങ്ങോട്ട് പോകാൻ പറ്റും വണ്ടിയും കൊണ്ട് പോകാൻ പറ്റില്ല സർ അത് നോർമലി എന്താപറയാ ഇത് നടപ്പാതയാണ് ഹിൽ ടോപ്പിലല്ലേ അതിലേ നമുക്കങ്ങനെ വണ്ടിയും കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ ടോപ്പിൽ എന്താപറയാ ഒരു ലേക്കാണ് സർ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ ഓക്കേ ഓക്കേ പിന്നെ എന്താപറയാ ഓവർ ഈവനിംഗ് ടൈമിലൊന്നും നമുക്കങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം എലിഫന്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് അങ്ങോട്ടു പോക്ക് ബുദ്ധിമുട്ടായിരിക്കും

പിന്നെ നമുക്ക് കുറുമ്പാലക്കോട്ട പോകാൻ പറ്റും സർ കുറുമ്പാലക്കോട്ടയൊക്കെ ഓൾമോസ്റ്റ് ടോപ്പ് വരെ നമുക്ക് വണ്ടിയും കൊണ്ട് പോകാൻപറ്റും ആ സർ അത് നമുക്ക് വെളുപ്പിനെ അതായത് മോർണിംഗ് ഏർലി മോർണിംഗ് പോകാം ആ ആ പോകണം കാരണം നമുക്കവിടുത്തെ സൺസെറ്റും കാര്യങ്ങളും പിന്നെ വ്യൂവൊക്കെ അടിപൊളിയാണ് കാരണം നമ്മൾ എന്താപറയാ ക്ളൗഡൊക്കെ മേഘങ്ങളൊക്കെ ഫുള്ള് താഴേക്കിറങ്ങി വരുന്നൊരു ഫീൽ ആണ് മൊത്തം എന്താപറയാ നമുക്കങ്ങനെ കാണാൻപറ്റും

അതിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഏതേലും ഒരാളെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുവുള്ളൂ കൂടെ വിടുവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടെ പുള്ളിയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുവെങ്കിൽ കുഴപ്പമില്ല പുള്ളിടെ കൂടെ

ആ അവർക്കും അറിയാം സാറെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ അങ്ങനെ എല്ലാം അറിയുന്നൊരാളേ കൂടെ വിടുളളൂ

പേയ്മെന്റും കാര്യങ്ങളുമൊന്നും സർ ചെയ്യേണ്ടിവരില്ല അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം ഞങ്ങടെ പേയ്മെന്റിന്നു ഞങ്ങൾ അഡ്ജസ്റ്റ് അറേഞ്ച് ചെയ്തോളാം ആ ഓക്കേ എല്ലാ ഡീറ്റെയിൽസും സാറിന് ഞാൻ അയച്ചുതരാം ഓൾമോസ്റ്റ് സ്ഥലങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അയച്ചുതരുന്നതായിരിക്കും